ഹലോ ഹലോ നമുക്ക് ഒരു ബുക്കിയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ട്രിപ്പിൻ്റെ കാര്യം അപ്പോള് നിങ്ങളുടെ കാര്യങ്ങളൊക്ക ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ നമുക്ക് അടുത്തയാഴ്ചത്തേക്കാണു നമ്മള് നോക്കുന്നത് നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിയണമായിരുന്നു അപ്പോള് നിങ്ങളങ്ങനെ പാക്കേജായിട്ടാണോ കൊണ്ടുപോകുന്നത്

സാർ നമുക്കെങ്ങനെയാണ് വേണ്ടതെന്നു വച്ചുകഴിഞ്ഞാല് നമുക്ക് നമ്മളേഴുപേരാണുള്ളത് ഫ്രണ്ട്സടക്കം നമ്മളപ്പോള് വയനാടില്നിന്നു നമുക്ക് മൂന്നാർ വരെ അതിൻ്റെ ഇടയിലുള്ള നമുക്ക് ഉള്ള പാർക്കുകളും കാര്യങ്ങളും എല്ലാം കണ്ടു വേണം പോകാൻ എല്ലാ കാര്യങ്ങളും നമ്മള് മാക്സിമം ഒരേഴു പേരാണിപ്പോഴുദ്ദേശിക്കുന്നത് ഒരു ഏഴുപേർക്ക് ഏത് വണ്ടി വേണം നിങ്ങളവിടെത്തന്നെ അവിടത്തെ റൂമും പോകുന്ന വഴിയിലുള്ള നൈറ്റുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങള് തന്നെ റെഡിയാക്കി ബുക്ക് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് നിങ്ങള് തന്നെ റെഡിയാക്കിത്തരുമോ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നാലും മൂന്നാറിലാണെങ്കിലും നിങ്ങള് അങ്ങനെ സെറ്റാക്കിത്തരുമോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ നിങ്ങളത് ഏത് നിങ്ങള്ക്കു രണ്ടും ആ ഓക്കെ ഓക്കെ നമ്മളതൊന്ന് ചോദിച്ചിട്ട് നമ്മളത് കൺഫേമെയ്യാം പിന്നെ പെർ പേഴ്സണാണോ മൂവ്വായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് ത്രീ തൗസൻറ്റ് ഫൈവ് ഹൺഡ്രഡ് ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ എല്ലാം നിങ്ങളുടെ അതില് ഇൻക്ലൂഡ് ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ വെൽ ആ ഓക്കെ അത് നമ്മള് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ ഒന്ന് ചോദിച്ച് ഡീലാക്കിയിട്ട് നമ്മള് കൺഫോം കൺഫർമേഷൻ പറയാം ആ ഓക്കെ ഓക്കെ താങ്ക്യൂ